രണ്ടുലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂന്നുലക്ഷത്തി നാല്പത്തി ഒന്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി അന്പത്തി ആറ് ഏഴ് ലക്ഷത്തി എണ്പത്തൊന്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാല് ലക്ഷത്തി അന്പത്തിയാറായിരത്തി എഴുന്നൂറ്റി എണ്പത്തി ഒന്പത്